ഇന്ത്യായിലെ വിദ്യഭ്യാസ സമ്പ്രദായം കൊറച്ചുംകൂടെ മെച്ചപ്പെട്ത്തണം മറ്റു രാജ്യങ്ങൾലെയപേക്ഷിച്ച് അവിടങ്ങളിലൊക്കൊയാണെങ്കി കുട്ടികള് സ്വയം തൊഴിൽ ചെയ്ത് അതിൽനിന്ന് കിട്ട്ന്ന വരുമാനം അതൊക്കെയവർക്ക് പോക്കറ്റ് മണിയായ്ട്ടുപയോക്കാം പിന്നെയതുപോലെന്നെയവർക്ക് പഠിക്കിന്നയ്നവർടെ അവര്തന്നെ സ്വയം പൈസയെല്ലാം കണ്ടെത്തിയാണവര് പഠിക്കിന്ന് പക്ഷെ നമ്മടിവടെമാത്രം മാതാപിതാക്കള് ഹെൽപ്പെയ്ത് എക്ക്യാണ് പഠിക്കിന്ന് അതൊക്കെയിവടേന്ന് മാറ്റണം അതോലെന്നെ പഠിക്കിമ്പം നല്ല രീതിക്ക് പഠിക്കാൻ സഹായിക്കും പൊറത്ത് രാജ്യങ്ങളിലൊക്കെന്ന് പറയ്മ്പോ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും അത്പോലെന്നെ പഠിക്കാനായിട്ടുള്ളെല്ലാ ഹെൽപ്പുണ്ട് ഇവിടേന്ന് പറയ്മ്പോ അത് കൊറവാണ് അപ്പതുപോലെന്നെ മറ്റ് രാജ്യങ്ങളെപ്പോലെതന്നെ ഇന്ത്യയും മെച്ചപ്പെട്ട രീതീല് മുമ്പോട്ട് കടന്ന്വരണം കുട്ടികൾക്ക് വിദ്യാഫ്യാസം നൽകാനാണെങ്കിലത്പോലെന്നെയവർക്ക് പഠിക്കിമ്പോ പഠിക്കാനാവശ്യമായ ഇൻസ്ട്രമെൻറ്റ്സ് അത്പോലെന്നെ ബുക്ക് ബുസ്തകം അതെല്ലാം അവർക്കാവശ്യമായത് എത്തിച്ചൊടുക്കാനത്പലെന്നെ ഓരോ കോളേജുകൾക്കും ഓരോ സ്കൂളുകൾക്കും ലൈബറിവേണം പിന്നെയതുപോലെതന്നെ ക്ലാസ് മുറികളിലിര്ത്തി പഠിപ്പിക്കാത്തത്പോലെ ക്ലാസ് മുറികളിലിര്ത്തി പഠിപ്പിക്ക്യാ വെളീലൊട്ടൊക്കെ കൊണ്ട്പോയി അവടെയൊക്കെ വെച്ച് കുട്ടികൾക്ക് ക്ലാസ്സെക്കെയെട്ക്കണം ക്ലാസ്സെട്ക്ക്ന്ന സമയത്തവരാണെങ്കി നല്ല രീതി പഠിക്കിന്നൊണ്ടോന്നൊക്കെ മാതപിതാക്കള് ശ്രദ്ധിക്കണം അതുപോലെന്നെ ഇന്ത്യയ്ല് വിദ്യാഭ്യാസ രീതിന്ന് പറയ്മ്പോ വളരെയധികം ഇവടെയാണെങ്കി മറ്റു ഏറ്റോം കൂട്തല് ഇന്ത്യയ്ല് ഭാഷേനെ കൂട്തലായ്ട്ടും വല്ല്യായിതായ്ട്ട് പഠിക്കിന്നില്ല മറ്റ് സംസ്ഥ രാജ്യങ്ങളെയൊക്കെ നോക്ക്വാണെങ്കി അവര്ടെ ഭാഷായാരിക്കും അവര് കൂട്ലായ്ട്ട് പഠിക്കിന്ന് അത്പോലെന്നെ നമ്മടെ ഭാഷ നമ്മള് കൂടുതലായ്ട്ട് പഠിക്കും മറ്റ് സംസ്ഥാനങ്ങൾലേക്ക് നമ്മള് കട പഠിക്കാൻ വിട്ന്നവർടെ ശ്രദ്ധക്ക് ഇന്ത്യയ്ത്തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്ക്യാ അതുപോലെന്നെ ഇന്ത്യയെ കൂട്തലും മെച്ചപ്പെട്ത്താ ഇവടെ പഠിച്ച് ഇവിടത്തെയൊള്ള പൊറം രാജ്യങ്ങൾലൊള്ള പോലത്തെയൊരു വിദ്യാഭ്യാസരീതി നമ്മടെ ഇന്ത്യയ്ലും കടന്ന് വരണം അതുപോലെന്നെ ഇപ്പൊ കേരളത്തി മാത്രാണൊരു നല്ലൊരു വിദ്യാഭ്യാസെല്ലാ പതിനെട്ട് വയസ്സ് വരെയെല്ലാ കുട്ടികൾക്ക് വിദ്യാഭ്യാസൊള്ളത് അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങൾല് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾല് എല്ലാ സംസ്ഥാനങ്ങൾലും തന്നെ വിദ്യാഭ്യാസെല്ലാ കുട്ടികൾക്കും ഇല്ല അത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെന്നെ വിദ്യാഭ്യാസം വേണം അതിന് ഇന്ത്യയ്ലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന്തന്നെ പണ്ട് കാലത്ത്ന്ന് പറയ്മ്പോ ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഇന്ത്യയില് മറ്റുയർന്ന ജാതി താഴ്ന്ന ജാതിയങ്ങനെ നിന്നുകൊണ്ട് പണ്ട്കാലത്ത് ഭയങ്കര ജാതിസമ്പ്രദായം ഇന്ത്യയിലൊണ്ടാര്ന്നു അങ്ങനെ പണ്ടാണെങ്കി ഇന്ത്യയിലങ്ങനാർക്കും വിദ്യാഭ്യാസില്ലാന്ന് വിഷയില്ല ഇപ്പങ്ങനെയല്ല ഇപ്പം അത്യാശ്യം വിദ്യാഭ്യാസൊണ്ടെങ്കിലിനി ഇന്ത്യയിലെ വിദ്യാഭ്യാസം അധികം മെച്ചപ്പെടണം അധികമായിട്ട് മെച്ചപ്പെടണം മെച്ചപ്പെട്ടെങ്കി മാത്രമേയിനി വര്ന്ന് മറ്റുള്ള രാജ്യക്കാരെ പോലെത്തന്നെ നമ്മടെ രാജ്യത്തിലും എന്താണ് വിദ്യാഭ്യാസാണെങ്കി നല്ലരീതിക്ക് മുമ്പോട്ട് കൊണ്ടുവരണം പിന്നെയാണെങ്കി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുവാണെങ്കി നമ്മള് കുട്ടികളെ ഒരോ സ്ഥലത്തൂടെല്ലാം കൊണ്ടുപോയി അവിടെയൊക്കെ പരിചയപ്പെട്ത്തീട്ട് വേണം പഠിപ്പിക്കാൻ പക്ഷെ ക്ലാസ് മുറികളീമാത്രം ഇരുത്തിയല്ല എല്ലാ സ്ഥലത്തൂടെ വിസിറ്റൊക്കെ ചെയ്ത് വേണം പഠിപ്പിക്കാൻ അത്പോലെന്നെ കുട്ടികൾക്ക് പ്ലേ ടൈമൊക്കെ നല്ല രീതിയിൽ കൊട്ക്കണം സ്പോർട്സ് കാര്യങ്ങളെല്ലാവരേം മുമ്പോട്ട് നയിക്കണം അത്പോലന്നെ സ്വിമ്മിങ് അങ്ങനൊള്ള കൊറേ കാര്യങ്ങളെല്ലാം നമ്മള് കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെങ്കി മാത്രേ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം മുമ്പോട്ട് വരത്തൊള്ളു